അതേല്ലോ അതേല്ലോ

പല്ലിന് ചുറ്റും കേടുണ്ടോ ആ ഒറ്റയൊരു പല്ലിനേ കേടുള്ളോ അതോ അടുത്തുള്ള പല്ലിനൊക്കെ കേടുണ്ടോ മ്മ് എന്നാൽ നിങ്ങൾ അടുത്ത ദിവസം തന്നെ വന്നു പല്ലിൻ്റെ എക്സ് റേ എടുത്തുനോക്കണം എന്നിട്ട് വേണം പല്ലിന് ചുറ്റും വേറെ കേട് ബാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം അത് ഈ എക്സ് റേ എടുത്തു നോക്കിയാലേ ഇതിൻ്റെ കേടുണ്ടോ ഇല്ലെയോ എന്ന് അടിയിൽ വേരിൻ്റെ അവിടെ കേടൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ ആ കേട് ആ പറഞ്ഞോ പഴുപ്പും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അന്ന് ഒരാഴ്ച്ചത്തേതിനുള്ള ടാബ്ലറ്റ് തന്നില്ലായിരുന്നോ അത് കഴിച്ചായിരുന്നോ ആ വായിക്ക വായ്ക്കകത്തുനിന്ന് ചോര വരുന്നുണ്ടോ ഇങ്ങനെ തുപ്പൽ വരുമ്പോൾ ആ

ആ പല്ല് തന്നെയിങ്ങനെ കടിക്കുമ്പോൾ വേദനയുണ്ടോ ആ നമുക്ക് എന്നാൽ ഇപ്രാവശ്യം വരുമ്പോഴേ എന്നാൽ പല്ല് ഒന്നുകൂടെ ക്ളീൻ കൂടെ ചെയ്തേക്കാം അന്നേരം ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ തീരും ആ പിന്നെ ഈ പല്ലെടുത്ത് ആ ഞാൻ ഇനി രണ്ടുമൂന്ന് ദിവസത്തിന് ഇല്ലേ ഞങ്ങൾക്ക് മീറ്റിങ്ങ് ആണ് അതിനുവേണ്ടി ഞാൻ കോട്ടയത്തിന് പോവുകയാണേ അപ്പോൾ ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച വന്നാൽ എന്നെ കാണാൻ പറ്റും നല്ല സോഫ്റ്റ് അയിട്ടുള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ വെജിറ്റബിൾ സൂപ്പ് ഒക്കെ നല്ലതാണ് ഇതിന് എരിവുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കല്ലേ നല്ല മൈൽഡ് ആയിട്ടുള ഫുഡ് വേണം കഴിക്കാൻ വൈറ്റമിൻസ് കുടുതലുള്ള ഫുഡ് ഒക്കെ കഴിക്കണം പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കണം ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് ആക്കിയിട്ട് കഴിക്കണം പിന്നെ ഷുഗർ വല്ലതുമുണ്ടോ ആ എന്നാൽ നമുക്ക് വന്നുകഴിയുമ്പോൾ അത് എക്സ് റേ എടുത്തുനോക്കുമ്പോൾ അതിനകത്ത് അറിയാൻ പറ്റും അല്ലാതെ ബ്ലീഡിങ്ങ് ഒന്നും ഇല്ലല്ലോ വായ്ക്കകത്ത് മ്മ് ആ പിന്നെ രാവിലെയും വൈകിട്ടും ഉപ്പിട്ട വെള്ളത്തിൽ നല്ലതയിട്ട് ഗാർഗിൾ ചെയ്യണം രണ്ടുമൂന്ന് പ്രാവശ്യം ചെയ്യണേ ആ ഈ തന്ന മരുന്നിന് വല്ലതും അലർജി ഉണ്ടായിരുന്നോ ആ ആ പിന്നെ ഈ കാൽസ്യം ഉള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കണം അല്ലെങ്കിൽ ഈ പല്ലെല്ലാം പൊട്ടിപോവും അപ്പോൾ അടുത്ത തിങ്കളാഴ്ച വന്നോളൂ കേട്ടോ ബ്ലീഡിങ്ങ് വല്ലതുമുണ്ടെങ്കിൽ നേരത്തെ വന്നാൽ അവിടെ നേഴ്സ് ഉണ്ട് വരുന്ന വേറെ ടാബ്ലറ്റ് ഞാൻ മാറ്റി കൊടുത്തേക്കാം വിളിച്ചു പറഞ്ഞാൽ മതി എന്നാൽ ആയിക്കോട്ടെ ലക്ഷ്മി ആ ശരി